ആ പറയൂ

കേരളത്തിലോ

ആ ഇപ്പം വയനാട്ടിൽ നോക്കുകയാണെങ്കിൽ നല്ല ഊണ് കിട്ടും

വെജിറ്റേറിയനുണ്ട് നോൺവെജും ഉണ്ട് ആ സാമ്പാർ അവിയൽ കൂട്ടുകറി തോരൻ പുളിശ്ശേരി മെയിൻ ആയിട്ടാണോ

മീൻ മത്തി അയല നെത്തോലി ചെമ്പല്ലി കൂന്തൽ പിന്നെ ഞണ്ടുണ്ട് കുറുവദ്വീപ് ആ ആ ഉണ്ട് ഉണ്ട് ഇപ്പം ഒരു റൂമിലാണെങ്കിൽ ഒരു അഞ്ചു പേർക്ക്

ആ ആ തരും

ഇല്ലയില്ല ആ രാവിലെയുണ്ട് പിന്നെ വൈകുന്നേരം ചായ എന്താണെന്നു വച്ചാൽ പറഞ്ഞാൽമതി ഓർഡർ ചെയ്യാം

അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കിത്തരാം ഇപ്പം സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയും പോകാം നൂറ് രൂപ പിന്നെ സ്പെഷ്യൽ മേടിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ആ എല്ലാം നല്ല ആ ഉണ്ട് ആ പറയുന്നതനുസരിച്ച് ഉണ്ടാക്കിത്തരും

ആ ആ വിളിച്ചാൽ മതി ആയിക്കോട്ടെ ഓക്കേ താങ്ക് യു